ഹലോ ഹലോ ക്യാബ് ഡ്രൈവർ അല്ലേ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നതായിരുന്നു അപ്പോൾ എനിക്ക് കേരളത്തിൽ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾക്ക് താമസിക്കാനൊക്കെ സൗകര്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റിസോർട്ട് ഒക്കേ ഉണ്ടല്ലേ ആ ആ ആ ആ നമുക്ക് കേരളം മൊത്തമാണ് അപ്പോൾ വയനാടും അതായത് കാസർഗോഡ് തൊട്ട് നമുക്ക് തിരുവനന്തപുരം വരെ ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വണ്ടിയും വേണം നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം റെഡി ആക്കണം നമ്മളൊരു വയനാട്ടിൽ ഒരു നാലഞ്ച് ദിവസം ഉണ്ടാവും ആ ആ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ നമുക്കിപ്പോൾ മൂന്നാറിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യമില്ലേ മൂന്നാറിലുണ്ടല്ലേ ആ ആ ആ ആ ആ വള്ളിയൂർ റിസോർട്ട് അല്ലേ ഓക്കേ ആ അങ്ങനെ മതി നമ്മൾക്കിപ്പോൾ എവിടെയാണോ നമ്മൾക്ക് നൈറ്റ് ഹാൾട്ട് ചെയ്യുന്നത് അവിടംന്തൊട്ട് അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേ വേണ്ടത് അപ്പോൾ അവിടെ റെഡി ആക്കി തന്നാൽമതി എവിടെ ആണെങ്കിലും ആ ഓക്കേ പൈസ ഒരു വിഷയം അല്ല കേട്ടോ ആ അതില്ല അതില്ല നമുക്ക് പൈസ ഒരു വിഷയമല്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് പൈസ എത്ര വേണമെങ്കിലും റെഡി ആക്കാം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കണം

ആ നമുക്ക് നിങ്ങളുടെ വണ്ടി എന്തായാലും ആവശ്യം ഉണ്ട് കേട്ടോ വണ്ടി നമുക്ക് എന്തായാലും ആവശ്യമുണ്ട് നമ്മൾ ആറ് പേരാണ് വരുന്നത് അപ്പോൾ ആറ് പേർക്കുള്ള ഒരു ഇന്നോവ ആണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ പുതിയ മോഡല് ക്രിസ്റ്റയില്ലേ

നമുക്ക് കുറച്ച് ആ നമുക്ക് നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്ന ആളുകൾ പറഞ്ഞപോലെതന്നെ മതി കുഴപ്പമൊന്നുമില്ല നമുക്ക് ടൗൺ ഏരിയ വേണ്ട ടൗൺ ഏരിയ ആവുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമൊക്കേ ആവില്ലേ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ എന്തായാലും നമ്മൾ പതിനഞ്ചാം തീയ്യതി ഉണ്ട് അതിനുള്ളിൽ നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽമതി ഈ നമ്പറിൽ ഒന്ന് കോൾ ചെയ്തേക്ക് ഓക്കേ എന്നാൽ ആ ഓക്കേ